ഹലോ ജസ്റ്റ് വൺ സെകേണ്ടെ കേൾക്കാലോ വൺ സെകേണ്ട് പ്ലീസ് ഹലോ മരിയൻ ബേക്കറി ആയിരുന്നു ആരായിരുന്നു സംസാരിക്കണത് താങ്കൾക്ക് എന്ത് ഹെൽപ്പ് ആണ് വേണ്ടത് ഓകെ പറയൂ സാർ ആ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ചിക്കൻ സമൂസ ഉണ്ട് മീറ്റ് സമൂസ ഉണ്ട് ഹലോ കേൾക്കാമോ

ഹലോ കേൾക്കാവോ വെജ് പപ്സ് ഉണ്ട് പിന്നെ ബനാന പപ്സ് ഉണ്ട് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് സാർ ഇരുപതണ്ണം എപ്പോഴത്തേക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ടൈം പറയാമോ നമുക്ക് ഇപ്പോൾ കുറവായിരിക്കും ആറു മണി ആവുമ്പോഴേക്കും എത്തിക്കാൻ സാർ കുഴപ്പമില്ല ഓക്കേ സാർ സമൂസ വെജ് ഉണ്ട് ബീഫ് ബീഫ് ഉണ്ട് ആ ഓക്കേ സാർ ഷെയ്ക്ക് സെറ്റ് ചെയ്യാൻ സാർ എത്രക്കായിരുന്നു എത്ര എണ്ണം വേണ്ടിയിട്ടായിരുന്നു മുപ്പത്തഞ്ചണ്ണം അല്ലേ സാർ ഓക്കേ സാർ ഞങ്ങളത് ഡെലിവറി അയക്കാം അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി ആ ലൊക്കേഷൻ ഇട്ടാൽ മതി നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് ആക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് ഡെലിവറിയുടെ ഇതും കൂടി പറയാൻ പറ്റുകയുള്ളു ചിലപ്പം അഞ്ചു കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് എക്സ്ട്രാ ടെൻ റുപ്പീസ് ചാർജ് ആകുന്നുണ്ട്

ബിസിനസ് കുഴപ്പമില്ല സാർ നന്നായിട്ട് പോകുന്നു നിങ്ങളെപ്പോലെ നല്ല കസ്റ്റമേഴ്സ് ഉള്ളതു കൊണ്ട് ഇതുപോലെ നല്ല ഓർഡഴ്സ്കൾ കിട്ടുന്നുമുണ്ട് സാർ ആണോ ആ എങ്ങനെയുണ്ടായിരുന്നു സാർ നമ്മൾ കറക്റ്റ് സമയത്ത് ഫുൾ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നോ ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കേ താങ്ക് യൂ സർ ഇനി എന്തെങ്കിലും ആവശ്യം ആ ഓക്കേ ഓ ഓക്കേ താങ്ക് യൂ സാർ അപ്പം എന്തെങ്കിലും ഓർഡറുകൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ആ ഓക്കേ സാർ